ഹലോ ഹൽഹീൻ ട്രാവൽസ് അല്ലെ എന്റെ പേര് അശ്വതി എന്നാണ് എനിക്ക് ഒരു ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഒരു പത്തു പതിനഞ്ചു പേര് പോകുന്ന രീതിയിലാണ് ഒരു ജീപ്പോ ടവേരയോ ഓക്കെയാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ അടുത്തിപ്പോൾ ഏതാണ് അവൈലബിള് ടവേര ഓക്കേയാണ് ഒക്കെ അപ്പോൾ ഈ അമൗണ്ട് ഒക്കെ എങ്ങനെയാണ് വരുന്നത് ഓക്കേ വെയ്റ്റിംഗ് ചാർജ് എന്തെങ്കിലും വരുന്നുണ്ടോ ആ ഇല്ല അല്ലെ അങ്ങനെയാണെങ്കിൽ വേണ്ടത് നാളെത്തേക്ക് ആണ് എനിക്ക് വേണ്ടത് ലൊക്കേഷൻ ഞാൻ വാട്സാപ്പ് ചെയ്യാം ടൈമും അതിൽ തന്നെ ഞാൻ മെൻഷൻ ചെയ്യാം ഓക്കേ